ആ ഞാൻ ഒരു ടൂറിസ്റ്റ് ആണ് ഞാൻ ഒരു ടൂറിസ്റ്റ് ആണ് എനിക്ക് ഇത് മെസ്സേജ ഇതാണോ ആയുർവേദ മസാജ് ചെയ്യുന്ന സ്ഥലമാണോ ആ ഞാൻ ആലപ്പുഴയിൽ നിന്ന് വിളിക്കുവാണ് ആ എനിക്ക് ആണെങ്കിൽ ഞാൻ ആണെങ്കിൽ ഒരു ജോലി ചെയ്യുന്ന ആളാണ് പക്ഷേ എനിക്ക് ഭയങ്കരം പെയിൻ ആണ് പോവാൻ ബാക്ക് പെയിനും അപ്പോൾ എനിക്ക് അതിന് ചികിത്സയുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്

ആ ആ ആ ആ ആ

ആ ഓക്കെ ആ ആ ആ ആ ഹാ ആ അതേ ഞാൻ ആണെങ്കിൽ ഒരു മാസത്തേക്ക് എനിക്ക് ആകെ ലീവുള്ളൂ അപ്പം ഒരു മാസത്തേക്ക് അല്ലാതെ ഇരുപത് ദിവസത്തേക്ക് വല്ലതും പറ്റുമോ അ അങ്ങനെ വല്ലതും ഉണ്ട് അതിനുള്ള റേറ്റ് എത്രയാണ് ഓക്കെ ആ ആ

ഓക്കെ ഓക്കെ ഓക്കെ ആ ഓക്കെ ആ അപ്പം നിങ്ങൾ എന്നാൽ ഇരുപത് ദിവസത്തേക്കുള്ളത് ഫിക്സ്യ്തേര് കാരണം ഒരു മാസം പിന്നെ എനിക്ക് കിട്ടുന്ന പത്ത് ദിവസമാണ് അതെനിക്ക് പോകാനുള്ള പ്രോസസ്സിംഗ് ഒക്കെ നടക്കേണ്ടതാണ് അതുകൊണ്ട് ആ ഇരുപത് ദിവസത്തേക്ക് ഫിക്സ് ചെയ്യാം അത് എന്നത്തേക്ക് ഞാൻ വരണം ഓക്കെ അ അപ്പം നമ്മൾക്ക് അതിനുള്ള വഴിയൊക്കെ ഒന്നു പറഞ്ഞു തരുമോ നമുക്ക് വാഹനം കയറി വരാവുന്ന സ്ഥലമാണോ ആ ഓക്കെ ആ അവിടെ വന്നാൽ മതിയല്ലേ ആ ഓക്കെ ഉണ്ട് ആ പിന്നെ നമുക്ക് എനിക്ക് ഒരുപാട് പെയിൻ വേദനയാണ് അപ്പോൾ നമുക്ക് ആ കിഴി കെട്ടും കൂടെ അത് ചെയ്യണം ഓക്കെ വന്നാൽ മതിയല്ലേ